എന്ത് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യം ആദ്യം കുറേ നാൾ ഞാൻ ചീനചട്ടിയിലാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ചീനച്ചട്ടിയിലാണെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമല്ലൊ നമുക്ക് സവാള വഴറ്റാം അതൊരു സ്വീറ്റുണ്ടാക്കുകയാണെങ്കിൽ ഒരു മധുരമുള്ള പലഹാരുണ്ടാക്കുകയാണേ അത് നമുക്കതിലുണ്ടാക്കാം പൊരി വറകൾ പൊരിച്ചെടുക്കാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് കുറച്ചു കൂടി നല്ലത് നല്ല കോട്ടിങ്ങുള്ള മെലാമിൻ പാത്രങ്ങളാണ് അപ്പം ആ ഒരു പാത്രം ഉപയോഗിക്കാൻ തുടങ്ങി എല്ലാറ്റിനും അതുപോലത്തെ നോൺ സ്റ്റിക്ക് അതായത് ഓയിൽ അധികം ഒഴിച്ചില്ലെങ്കിലും അത്രയധികം ഒട്ടിപ്പിടിക്കാത്ത പത്രങ്ങളാണ് ഉപയോഗിക്കുക പിന്നെ ഈ ഇടക്കാണ് നമ്മൾ എണ്ണയും ഉപയോഗിക്കരുത് എയർ ഫ്രൈഡ് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു വായു ഉപയോഗിച്ചതു കൊണ്ട് അവർ പൊരിച്ചെടുക്കുന്ന ഒരു വസ്തു കണ്ട് പിടിച്ചുവെന്നാണ് ഇപ്പം ഞാൻ അതിലാണ് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുക പക്ഷെ എന്നാലും ഞാൻ ചീനച്ചട്ടി ഉപയോഗിക്കലുണ്ട് കാരണം അതിനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊരുപാട് സംഭവങ്ങൾ നമ്മളതിലേക്ക് ഉപയോഗിക്കും ഇപ്പം നമ്മൾ എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും അതിന് ആവശ്യമുള്ള കുറച്ച് പത്രങ്ങളുണ്ട് ആ പത്രങ്ങൾ നമ്മൾ പ്രത്യേകമായി ഉപയോഗിക്കുക ഒരു പ്രത്യേക പാത്രമെന്ന് പറയാനില്ല പക്ഷെ ഞാൻ ഉപയോഗിക്കണേൽ അത് കൂടുതലും ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടി പിടിക്കാത്ത നോൺ സ്റ്റിക്ക് പത്രങ്ങളോ ആയിരിക്കും പിന്നെ പൊരിക്കാൻ ഞാനിപ്പളെപ്പോഴും നമ്മളുടെ വായു ഉപയോഗിച്ച് പൊരിക്കുന്ന എയർ ഫ്രയറാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മൾ ഓരോ പാത്രത്തിലുണ്ടാക്കുമ്പോഴും അതിന് സ്വാദ് മാറലുണ്ട് എന്നുള്ളത് ഒരു വേറെ വസ്തുതയാണ് അത് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ മൺ ചട്ടിയിലുണ്ടാക്കുന്ന മീൻ കറിയും ചീന ചട്ടിയിലുണ്ടാക്കുന്ന മീൻ കറിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൺ ചട്ടിയിലുണ്ടാക്കുന്ന ആ ഒരു ഏറ്റവും നല്ല ആ ഒരു പണ്ടത്തെ തനിമയുള്ള രുചിയായിരിക്കും കിട്ടുക അതേസമയം നമ്മൾ ചീനചട്ടിയിലുണ്ടാക്കുകയാണെങ്കിൽ നമ്മളാ ഒരു സമയത്ത് നമുക്കുള്ളത് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മീങ്കറി പോലെയാണ് ഉണ്ടാകുക അപ്പം രണ്ട് മീങ്കറിയും തമ്മിൽ നല്ല രസം വ്യത്യാസമുണ്ടാകും കാരണമെന്താണ് നമുക്കെന്നും സ്വാദാണ് പ്രധാനം അതിനെ സ്വാദാണ് നിങ്ങളിഷ്ടപ്പെടുന്നത് അല്ലാതെ കേവലം എളുപ്പ പണിയല്ല എന്നുണ്ടെങ്കിൽ പാചകം ചെയ്യുമ്പോൾ മൺ ചട്ടിയിൽ മീങ്കറി ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങളുടെയടുത്ത് പറയുകയുള്ളു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഭക്ഷണമുണ്ടാക്കാൻ